ചെറുപ്പത്തിലുള്ള എൻ്റെ ഒരു യാത്രാനുഭവം എന്നുവെച്ചാൽ ഞാൻ ചെറുതായിരുന്നപ്പോൾ ഹിൽപാലസ് പോയതാണ് എറണാകുളം ജില്ലയിലായിരുന്നത് അപ്പോൾ എൻ്റെ അച്ഛന് ജോലി സംബന്ധമായിട്ട് അവിടെ ഒരു ട്രെയിനിങ് വരുകയും അങ്ങനെയാണ് ഞങ്ങളാദ്യമായിട്ട് ഹിൽപാലസിനെ കുറിച്ച് അറിയുന്നത് അപ്പം ഒരു ദിവസം ഞങ്ങൾ ഫാമിലി അച്ഛനും അമ്മയും ഞാനും അനിയനും കൂടി രാവിലെ കോട്ടയത്തൂന്ന് ട്രെയിനിൽ കയറിയിട്ട് എറണാകുളത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി അങ്ങനെ ആദ്യമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ട്രെയിൻ യാത്ര അത് തന്നെയായിരുന്നു ആദ്യം അപ്പം ഹിൽപാലസിലേക്ക് പോയി നമ്മുടെ പഴയ രാജാക്കന്മാരുടെ കൊട്ടാരമായിരുന്നു തന്നെയല്ല വളരെയധികം സിനിമകൾ ഹിൽപാലസിൽ എടുത്തിട്ടുണ്ട് അപ്പം സ്ഥലം കാണുകയായി തൊട്ടനുവദിച്ചിട്ടുള്ള ചെറിയ പാർക്കുകളൊക്കെയുണ്ട് അവിടെ മാൻ അങ്ങനത്തെ മയിൽ അങ്ങനെയുള്ള ജീവികളെല്ലാം ഉണ്ട് അപ്പം ആ ഹിൽ പാലസിനകത്തതായിരുന്നു ഞങ്ങളുടെ എൻ്റെ ചെറുപ്പത്തിലുള്ള ഏറ്റവും എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നൊരു യാത്ര പിന്നെയാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം വരെ അവിടെ ചിലവഴിക്കുകയും അവിടുന്ന് തന്നെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്ത് തിരിച്ചെത്തി അപ്പോൾ ഏറ്റവും നല്ലൊരു സ്മരണ തന്നെയായിരുന്നു അത്